ആ ഹലോ ആരാണ് വിളിക്കുന്നത് ആ ആരാണ് വിളിക്കുന്നത് ആ സുഖമായിരിക്കുന്നു ഞാനിപ്പോൾ ഒരു ചങ്ങനാശ്ശേരിയിൽ ഷോപ്പിംഗിന് വന്നിരിക്കുവാണ് എന്താണ് എന്താണ് ജിജി വിളിച്ചതെന്താണ്

ആ ശരി എന്നാൽ അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ജിജി പോവുമ്പോൾ എന്നെ കൂടി വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു എവിടെയാണ് ധ്യാനിക്കാൻ പോവേണ്ടത് ആ ആ അതെ അതെ ആ ആ എത്ര ദിവസത്തെ ധ്യാനം എന്നാണ് ധ്യാനം തുടങ്ങുന്നത്

ശനിയാഴ്ച്ച തീരും ഇത് അടുത്ത മാസമാണോ അതോ സെപ്റ്റംബറിൽ ഓണം കഴിഞ്ഞിട്ടാണോ എനിക്ക് നമുക്ക് ഓണം ഹോളിഡേയ്സിന് പോയാലോ കാരണം മുമ്പ് വേറെ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ അടുത്ത മാസം പോകാൻ പറ്റില്ല അപ്പോൾ ഓണത്തിൻ്റെ സമയത്ത് ആണെങ്കിൽ പിള്ളേർക്കൊക്കെ അവധി ഉണ്ടല്ലോ അപ്പോൾ പോകാം എന്നോർത്തിരിക്കുവാണ് ആ ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയത് ആ നല്ല ധ്യാനമാണ്

ആ ഇപ്പോൾ എത്ര ആണാവോ ഫീസ്

ആ ആ ഹാ ആ രാത്രിയായിട്ട് ആ ആ സേവിയർ കാൻ വ വട്ടായിലച്ചൻറെ ആയിരിക്കുമല്ലേ അച്ചൻ ആയിരിക്കും ധ്യാനം കൂടുമല്ലേ

ആ അത് നമുക്ക് ട്രെയിനിന് പോവണോ അതോ ബസ്സിന് പോവണോ എങ്ങനെയാണ് പോവേണ്ടത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആ ആ അവിടെ പോയി ഇറങ്ങണോ നേരിട്ട് അട്ടപ്പാടിക്കാണോ നേരിട്ട് അട്ടപ്പാടിക്കാണോ ആ ഹാ ഹാ ഹാ ഓ തുരുത്ത് ആ

മേലെ പോവുന്ന വഴിക്ക് സൈലൻറ് വാലി ഉണ്ടല്ലോ അവിടെ ഇറങ്ങിയാലോ സൈലൻറ് വാലി ഒരു നല്ല സ്ഥലമാണ് അത് കണ്ട് ആ സമയം ഉണ്ട് ആ ആ അവിടെ നല്ല രസം പിന്നെ പച്ചപ്പും വന്യ മൃഗങ്ങളൊക്കെ ഇറങ്ങി വരുന്ന സ്ഥലമാണ് അട്ടപ്പാടി പിന്നെ അട്ടപ്പാടി പോവുവാണെങ്കിൽ ആദിവാസി ആദിവാസികൾ താമസിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമുക്ക് ധ്യാനം കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ടൊന്ന് പോയി അവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്താലോ പാവപ്പെട്ട ഏതെങ്കിലും കുടുംബത്തെ കണ്ടെത്തി കണ്ടെത്തി നമുക്ക് എന്തെങ്കിലും ജീവ കാരുണ്യ പ്രവൃത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഏ നമ്മുടെ ഇടവകയിൽ വന്ന് നമുക്ക് അച്ചനോട് സംസാരിച്ചിട്ടേ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കാം അല്ലേ വരുന്ന വഴിക്ക് നമുക്ക് എന്തോ വരുന്ന വഴിക്ക് നമുക്ക് ഡിവൈൻ ധ്യാന കേന്ദ്രം ഉണ്ടല്ലോ അവിടെ ഒന്ന് കയറിയാലോ അവിടെ കയറിയിട്ടേ നമുക്ക് ഒന്ന് കാണണമായിരുന്നല്ലോ ഞാൻ മാക്കമൻറെ അടുത്ത ബന്ധുവാണേ ആ ആ അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഡിവൈനിൽ നിന്ന് തന്നെ അവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അവിടുന്ന് നമുക്ക് ട്രെയിനിന് പോരാം ആ ആ പിൻ ആ നമുക്ക് എന്നിട്ട് ഇവിടെ കോട്ടയത്ത് ഇറങ്ങാം അല്ലേ കോട്ടയത്ത് ഇറങ്ങി നമുക്ക് ഒരു ചാ ആ ഹാ അവിടെ എൻ്റെ ഹസ്ബൻഡ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടേ ആ അതില്ല അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഫ്രിഡ്ജ് വാങ്ങണം കാരണം നമ്മൾ ട്രെയിൻ ഏകദേശം ഒരു രണ്ടര ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ശേഷമേ ട്രെയിൻ വരുള്ളൂ റെയിൽവേ സ്റ്റേഷനിലേ

അപ്പം ജിജി അവിടെ ഇറങ്ങുമോ അതോ ജിജി നേ നേരിട്ട് പോരുമോ അതോ ഞങ്ങളുടെ ഒപ്പം പോരാൻ നിൽക്കുമോ എങ്ങനെയാണ് ആ ഹാ ഹാ ഓ അവിടെ ഇറങ്ങിയിട്ട് വേണ്ട അല്ലേ വേണ്ട ചേട്ടൻ വരുന്നതുകൊണ്ട് കുഴപ്പം ഇല്ല ആ ഹാ ആ ആ ഹാ ജിജിയുടെ ആരാണ്ട് അവിടെ ഉണ്ടല്ലോ അട്ടപ്പാടി ഒരു കഴിഞ്ഞ പ്രാവശ്യം ജിജി എന്നോട് പറഞ്ഞു ജിജിയുടെ ആരാണ്ട് അവിടെ ഉണ്ട് അട്ടപ്പാടിയിൽ ആരോ ബന്ധുക്കൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഉണ്ടല്ലേ അവിടെ പോവുന്നില്ലേ അവിടെ പോവുന്നുണ്ടോ ആ അപ്പം ധ്യാനം കഴിഞ്ഞിട്ട് പോവാം എന്നാൽ നമ്മൾ ധ്യാനം തുടങ്ങുന്ന ദിവസമാണല്ലോ ചെല്ലുന്നത് അപ്പോൾ നമുക്ക് എല്ലായിടത്തും പോയി നടക്കാൻ പറ്റില്ല അപ്പോൾ ധ്യാനം കഴിയുമ്പോൾ നമുക്ക് പോകാം അല്ലേ പിന്നെ കൗൺസിലിംഗ് കൗൺസിലിംഗിന് പോവുന്നുണ്ടോ ആ ശരിയാണ് ആ ഹാ അച്ചനെ പേഴ്സണൽ ആയിട്ടൊന്ന് കാണണമായിരുന്നു ആണോ ഓ

ആ അതെ അതെ ആ ആ ശരി അപ്പോൾ ഓക്കെ എന്നാൽ ആ